ഹലോ സ്വിഗ്ഗി അല്ലേ ആ ചേട്ടാ ഞാൻ സ്വിഗ്ഗിയിൽ കുറച്ചുമുന്നേ ഓര്ഡര് ചെയ്തിട്ടുണ്ടായിരുന്നു തലശ്ശേരിയിൽ നിന്ന് വിളിക്കുന്നതാണേ ഞാൻ കുറച്ച് രണ്ട് ഫുള് ബിരിയാണി രണ്ട് മന്തി ഒക്കെ ഓര്ഡര് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടന് എപ്പോഴാണ് എത്തുക ഇപ്പം ചേട്ടന് എവിടെയാണ് ഉള്ളത് ഓക്കേ ഓക്കേ അവിടുന്ന് നമ്മുടെ ഈ ലോക്കേഷനിലേക്ക് എത്ര ഏകദേശം എത്ര ടൈം എടുക്കും ഓക്കേ ഓക്കേ അപ്പം അരമണിക്കൂറിനുള്ളില് ചേട്ടന് എന്തായാലും ഇങ്ങോട്ട് എത്തു എത്തുവാരിക്കും അല്ലേ അപ്പോള് നിങ്ങൾ കൊണ്ടുവരുന്ന ഫുഡ് തണിഞ്ഞ് പോവത്തൊന്നും ഇല്ലല്ലോ അതായത് ചൂട് നിൽക്കുമല്ലോ അല്ലേ അത്രയും ടൈം ചേട്ടന് ഒന്ന് മാക്സിമം സ്പീഡിൽ കൊണ്ടുതരാൻ ശ്രമിക്കണേ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓര്ഡർ ചെയ്ത് ഫ്രഷോടെ കഴിക്കാന് വേണ്ടിയിട്ട് ആണ് ഞാന് ഓര്ഡര് ചെയ്തിട്ടുള്ളത് മാക്സിമം സ്പീഡിൽ തന്നെ കൊണ്ടുതരാൻ ശ്രമിക്കണം ഓക്കെ ചേട്ടാ ശരി